വയനാട് ജില്ലയിൽ പ്രധാനപ്പെട്ട പ്രാദേശിക മാധ്യമങ്ങൾ എന്തക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയാണെങ്കിൽ പത്രം തന്നെയാണ് പത്രം മാതൃഭൂമി മലയാള മനോരമ ജന്മഭൂമി ദേശാഭിമാനി അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ട് അപ്പം ഇപ്പോൾ പത്രം വരുത്തുന്നവരക്കെ കുറവാണ് എന്നാലും വരുത്തുന്നുണ്ട് അത്യാവശ്യം എല്ലാവരുടെ പേരിലും എല്ലാവരുടെ വീട്ടിലും അപ്പം പിന്നെ പത്രത്തിൽ ഉണ്ടാവും നമുക്ക് വേണ്ട എല്ലാ അറിവുകളും നമുക്ക് അതായത് അറിയാനുള്ള വാർത്തകൾ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലുണ്ടാവും പിന്നെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടീ വിന്ന് ടീ വിയിലുള്ള ന്യൂസ് പിന്നെ എക്സാംപിള് പറയാണെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് ജയ്ഹിന്ദ് കേരളാ വിഷൻ ഇപ്പോൾ വയനാടിൻ്റെ വാർത്ത അറിയണമെങ്കിൽ വയനാട് വിഷൻ അങ്ങനെ ഒരുപാട് പിന്നെ മാധ്യമങ്ങളുണ്ട് പിന്നെ അങ്ങനെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ എന്തൊരു വാർത്ത ഉണ്ടെങ്കിലും നമ്മൾ വേഗം വാ ടീ വി തുറന്നിട്ട് നമുക്ക് വാർത്ത അറിയാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മാധ്യമങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം എന്ത് ന്യൂസ് ആണെങ്കിലും നമുക്കിപ്പം ടീ വിയിലാണെങ്കിലും കാണാൻ പറ്റും ഇപ്പം വാർത്തയിലാണെങ്കിലും കാണാൻ പറ്റും അതായത് പത്രങ്ങളിലൊക്കെ ടീ വിനെക്കാളും വായിക്കുമ്പോളാണ് നമുക്ക് കൂടുതൽ ഇതിണ്ടാവുക നമുക്ക് ടീ വിലെല്ലാവരും ഇപ്പോൾ കൂടുതൽ വർത്തയൊന്നും കാണാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല കാണുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പഴയ ആൾക്കാർ മാത്രമാണ് കൂടുതലും ടീ വിയിൽ വാർത്ത കാണുക പിന്നെ ടീനേജർസൊക്കെ വാർത്ത കാണുന്നത് വളരെ കുറവാണ് അവരൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ പാട്ട് അങ്ങനുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുക പിന്നേം പത്രം ഉണ്ടെങ്കിൽ നമ്മൾ പത്രമൊന്ന് നോക്കും അപ്പോൾ അതിലുള്ള വർത്തയൊക്കെ നമ്മൾ പിന്നെ കേൾക്കും